ഹലോ ഊബർ അതല്ലേ ഞാനേ എന്നെ കൊണ്ട് വിട്ട ഡ്രൈവറ് പേയ്മെൻ്റ് മേടിക്കാതെയാണ് പോയേക്കുന്നത് നിങ്ങള് വിട്ട ആള് അതുകൊണ്ട് ഒന്നെങ്കിൽ ആ ആളിൻ്റെ ഫോൺ നമ്പറ് ഒന്ന് അയച്ച് താ ഞാൻ എങ്ങനെ വേണം പേയ്മെൻ്റ് ചെയ്യാനായിട്ട് അതിന് ഗൂഗിൾ പേ ചെയ്യാനായിട്ട് അതിൻ്റെ നമ്പറ് എന്തേലും ഒന്ന് അയച്ച് തരുമോ നിങ്ങള് എന്തുവാ ഞാന് ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്ന് ഞാൻ ഡെൽഹിയിൽ നിന്ന് ഇവിടം വരെ വന്നു എന്നെ അവിടെ കൊണ്ട് വന്ന് വിട്ടേച്ച് നിങ്ങളുടെ സർവീസ് വളരെ മോശമായിരുന്നു കേട്ടോ ഞാൻ എന്തു മാത്രം ടയേർഡ് ആണെന്നറിയാവോ എന്നിട്ടത് പേയ്മെൻ്റ് പോലും ചെയ്യാൻ പറ്റാത്തത് പുള്ളി എന്നെ ഇറക്കി വിട്ടേച്ചു പോയി അതുകൊണ്ട് എൻ്റെ കയില് പൈസയായിട്ട് ഇപ്പോൾ തരാൻ ഇല്ല അതിപ്പം അത് ഗൂഗിൾ പേ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനെന്താണ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഡ്ര ഒന്നെങ്കിൽ ഡ്രൈവറുടെ ഗൂഗിൾ പേയോ അല്ലെങ്കില് നിങ്ങളുടെ ഗൂഗിൾ പേയോ എന്തെങ്കിലും അതിനുള്ള ഫോൺ നമ്പറ് വല്ലതും അയച്ച് തരിക അത് ഞാൻ എനിക്ക് തിരിച്ച് അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആ ആ അങ്ങനെയാണ് അതിന് എന്നെ ഒന്ന് സഹായിക്കുവല്ലോ അല്ലേ ഞാനെ എനിക്ക് ഇനി ഇവിടുന്ന് എത്ര മണിക്കൂറ് കഴിഞ്ഞാലാ പോകാൻ പറ്റുന്നത് നിങ്ങളെന്തൊരു സർവീസാണ് ചെയ്തത് എന്നെ ഇങ്ങനെ വഴിക്ക് കൊണ്ട് ഇറക്കി വിട്ടേച്ച് എന്നെ യഥാ സ്ഥാനത്ത് കൊണ്ടാക്കേണ്ടിയതല്ലേ അപ്പം നിങ്ങളെന്താ അങ്ങനെ ചെയ്തത് അതുകൊണ്ട് എനിക്ക് ഒന്നെങ്കിൽ വീണ്ടും വണ്ടി വിട്ടു തരുവോ അതൊന്ന് ചെയ്യണം അല്ലെങ്കിൽ ഈ വന്ന അത്രയും വണ്ടിയുടെ പൈസ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിയ സൗകര്യം എന്താന്ന് അത് ഒരുക്കി തരണം